സാധാരണയായിട്ട് നമ്മള് നീന്താൻ കുളങ്ങള് അല്ലെങ്കിൽ പുഴ അങ്ങനത്തെ സ്ഥലങ്ങളാണ് മാക്സിമം ട്രൈ നോക്കണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സ്ഥലത്തുപോലും നീന്തണതിനെക്കാട്ടിലും വലിയ സ്ഥലത്ത് പോയി നീന്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആവേശമുണ്ടാവും പിന്നെ അതുപോലെ കൊറച്ചുംകൂടി എനർജി കിട്ടും കുറേ നേരം നീന്തുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി മസിൽസൊക്കെ നന്നായിട്ട് ഫ്ലെക്സിബിളാവും പക്ഷെ ഒരുപാട് ആവേശം ഇപ്പോൾ അതുപോലെ അഹങ്കാരം അങ്ങനെ ഉള്ള പരിപാടി പാടില്ല നമ്മളിപ്പോൾ നമുക്കൊരു ഒരുപാട് നേരം നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്നു മണിക്കൂറടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ പരിശീലനം നടത്തണം എന്നുള്ള ഒരു പ്ലേനൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് എന്താ വെച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ പതുക്കെ പതുക്കെ നീന്തക പതുക്കെ ഭയങ്കര സ്ലോ ഒരു നീന്തണം എന്നാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകരുത് എന്നുള്ള രീതിയിലുള്ളൊരു ഇപ്പോൾ ഇതേ ചെയ്യാൻ പാടുള്ളു ഒരുപാടാവേശം ഫസ്റ്റുതന്നെ ഒരുപാട് സ്പീഡെടുത്ത് നീന്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി എന്താ പറയുക വീക്കായിപ്പോവും പിന്നെ നമുക്ക് മുന്നോട്ട് നീന്താനോ അല്ലെങ്കിൽ കുറച്ചൊരു മടി പിടിച്ച് പോകും അപ്പോൾ അതിനു പകരം പതുക്കെപ്പതുക്കെ നീന്തി നല്ല രീതിയ്ക്ക് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിലുള്ള ആ മസിൽസൊക്കെ ഒന്ന് ഫ്ലെക്സിബിളായി ഒന്ന് ഓക്കേ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്പീഡിൽ നീന്താം വീണ്ടും കുറച്ച് നേരം പതുക്കെ നീന്തുക അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ബോഡിനെ ഇതാക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജവും അതുപോലെ ഇതൊന്നും നഷ്ടപ്പെട്ടു പോവില്ല